എനിക്ക് എണീറ്റ പാടേ പല്ല് തേക്കണം മുഖം കഴുകണം ബാത്റൂമിൽ പോകണം പിന്നെ വുളുഅ് എടുക്കണം അതിനൊക്കെ ഒരുപാട് വെള്ളം വേണം പിന്നെ ചായ ഉണ്ടാക്കണം ചായ ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലും കടി ഉണ്ടാക്കണം കടി ഉണ്ടാക്കിയിട്ട് അതിന് എന്തേലും കൂട്ടാൻ ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ഒക്കെ വെള്ളം നല്ല ആവശ്യമാണ് പച്ചക്കറിയൊക്കെ കഴുകണമെങ്കിൽ കുറച്ച് വെള്ളമൊന്നും പോരാ നല്ലോണം കഴുകണം വൃത്തിയാണ് ആക്കണമെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളം വേണം പിന്നെ ചോറ് ഉണ്ടാക്കണം അതുപോലെ തന്നെ ചോറിന് കറി ഉപ്പേരി ഒക്കെ ഉണ്ടാക്കണമെങ്കിലും വെള്ളം വേണം അതൊക്കെ കഴുകണമെങ്കിലും നല്ല വെള്ളം വേണം പാത്രങ്ങൾ കഴുകണം പാത്രങ്ങൾ വൃത്തിയാവണം എന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് വട്ടം നല്ലോണം കഴുകണം പിന്നെ തിരുണം തിരുമ്പാനും അതുപോലെ തന്നെ ഒരുപാട് വെള്ളം വേണം തിരുമ്പലും ഒലുമ്പലുമൊക്കെയായിട്ട് ഒരുപാട് വെള്ളം വേണം പിന്നെ തുടക്കണം തുടക്കുമ്പോഴും വേണം ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം പിന്നെ ഫ്രൂട്ട്സ്സ് എന്തെങ്കിലും കൊണ്ട് വന്നാൽ അതും ഒന്ന് രണ്ട് വട്ടമൊന്നും കഴുകിയാൽ പോരാ നല്ല പോലെ കഴ്കി വൃത്തിയാവണം പിന്നേ കുളിണമെങ്കിലും വേണം ഒരുപാട് വെള്ളം കുളി കഴിഞ്ഞ് പിന്നെ ബാത്റൂമിൽ പോവാനും തന്നെ ഒരുപാട് വെള്ളം വേണം പിന്നെ വൈകുന്നേരം വരെ വെള്ളം കുടിക്കണം നമ്മൾക്ക് വെള്ളം കുടി കമ്മിയാവാൻ പാടില്ലല്ലോ ആ വെള്ളം കുടിക്കണം നല്ലോണം കുളിക്കാനും വേണം നല്ല വെള്ളം പിന്നെ ചായ പിന്നെയും ചായ ഉണ്ടാക്കണം പിന്നെ അങ്ങനെ ചായേം കടിയാക്കിയിട്ട് അങ്ങനെ പിന്നേയും പോവും അങ്ങനെ അങ്ങനെ അങ്ങനെ വെള്ളം ഒരുപാട് വെള്ളം അത്യാവശ്യമാണ് ആവശ്യമാണ്